ഇങ്ങനെ മലയാളത്തിൽ സംസാരിക്കുമ്പോഴോ എഴുതുമ്പോഴോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല നമുക്ക് ആ ഭാഷയോട് നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല ഒരിക്കലും കാരണം നം ഞങ്ങളൊക്കെ ഞങ്ങളുടെ ഇപ്പോൾ ഈ നമ്മുക്കൊക്കെ ഇത്ര എയിജുള്ളപ്പോൾ നമ്മളൊക്കെയെന്ന് പറഞ്ഞാൽ പണ്ട് നമ്മളൊക്കെ അക്ഷരം പഠിപ്പിച്ചതെന്ന് പറഞ്ഞാൽ ആശാട്ടിമാരുണ്ടായിരുന്നു അങ്ങനെ ആശാട്ടിമാർ നല്ല രീതീൽ ഓലയിൽ എഴുതി തന്ന് പിന്നെ നമ്മളെക്കൊണ്ട് അവർ മണലിൽ എഴുതിപ്പിച്ച് അങ്ങനെ അക്ഷരം പഠിച്ചതാണ് അങ്ങനെ നല്ല രീതിയിൽ അക്ഷരങ്ങളെല്ലാം തിട്ടമായി അതുപോലെ അതായത് മലയാള അക്ഷരം പണ്ടുള്ള ആശാട്ടിമാർ പഠിപ്പിക്കുന്നതിനത്രയും ഇപ്പം ആർക്കും അത്രയും പറ്റുന്നുണ്ടെന്ന് തോന്നുന്നില്ല അതേ രീതിയിൽ നമ്മൾ പഠിച്ചതാണ് അന്നൊക്കെ അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ പഠിക്കുകായെന്ന് പറഞ്ഞാൽ മലയാളം മീഡിയം ആയിരുന്നു അപ്പോൾ എല്ലാം കൂടുതലും മലയാളം അല്ലേ നമ്മൾ പഠിക്കുന്നത് ഇപ്പൊഴത്തെ ഇംഗ്ലീഷ് മീഡിയം ആകുമ്പോൾ നമുക്ക് ആ ഒരു വിഷയം മാത്രം മലയാളം കിട്ടുന്നുള്ളു പണ്ട് അതല്ല മലയാളമായാലും സയൻസായാലും സോഷ്യൽ സ്റ്റഡീസായാലും എല്ലാം മലയാളത്തിൽ വരുമ്പോൾ ആ അക്ഷരങ്ങൾ നമുക്ക് കൂടുതൽ കൂടുതൽ തിട്ടമാവുകയാണ് അപ്പം അത് എഴുതാനും വായിക്കാനും നമുക്കപ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല പിന്നെ പറഞ്ഞാൽ ഇപ്പോൾ ഈയുള്ള കുട്ടികൾക്ക് അതേസമയം ഇംഗ്ലീഷ് മീഡിയം പോകുന്നത് കൊണ്ട് അതുപോലെ പണ്ടുള്ളത് പോലെ ആശാട്ടിമാർ ഇന്നില്ല ഇന്ന് അംഗൻവാടികൾ മുഖേനയാണ് കുട്ടികൾ വി കുറച്ചെങ്കിലും അക്ഷരം പഠിക്കുന്നത് പക്ഷേ ഈ അംഗൻവാടികളിലും നിർബന്ധിതമായിട്ടിപ്പോൾ കുട്ടികളെ അങ്ങനെ പഠിപ്പിക്കാൻ പാടില്ലാന്നുള്ളത് കൊണ്ടും അംഗനവാടികളിൽ അത്ര അക്ഷരങ്ങളൊന്നും എഴുതി പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല ഇതുവരെ കാരണം നമ്മൾടേത് കുട്ടികൾ പഠിച്ച സമയത്തെ നമ്മൾ പഠിച്ച സമയത്തേം കൂടെ വ്യത്യാസം നോക്കുമ്പോൾ ഇപ്പോൾ ഉള്ള കുട്ടികൾ അത്രേയും അക്ഷരങ്ങൾ അവർക്ക് തിട്ടം ഉള്ളതായിട്ട് തോന്നുന്നില്ല അതുപോലെ പണ്ട് നമ്മളെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി വായനാ ശീലം നമുക്കുണ്ടായിരുന്നു ഈ അക്ഷരങ്ങളൊക്കെ പഠിച്ച് കഴിയുമ്പോൾ നമ്മൾ എങ്ങനൊക്കെ ആയാലും പത്രം കിട്ടിയാൽ അത് വായിക്കും അത് പോലെ പുസ്തകങ്ങൾ നമുക്ക് ചെറിയ പ്രായത്തിൽ വായിക്കാൻ പറ്റുന്ന പുസ്തകങ്ങൾ കള് എന്ത് കിട്ടിയാലും നമ്മൾ വായിക്കും അങ്ങനൊക്കെ ആയിരുന്നു നമ്മൾ അതുകൊണ്ട് നമുക്ക് അക്ഷരങ്ങൾ അതുപോലെ നിശ്ചയമുണ്ട് അതുകൊണ്ട് വായിക്കാനും എഴുതാനും നമുക്ക് ബുദ്ധിമുട്ടില്ല പക്ഷേ നമ്മളുടെ മക്കൾ ആ ഒരു എയിജിലുള്ള കുട്ടികൾ ഇപ്പോൾ ഞാൻ കാണുന്നിടത്തോളം അവർക്ക് വായിക്കാൻ മടിയാണ് അക്ഷരങ്ങൾ തിട്ടമില്ല ഒരു വിഷയം മാത്രമാണ് മലയാളം പഠിച്ചുവന്ന അക്ഷരങ്ങൾ തിട്ടമില്ല വള്ളി പുള്ളി ഒക്കെ ഇടുന്നത് എല്ലാം എന്താ പറയുക അവർക്ക് ഇപ്പോഴും തിട്ടമില്ലാതായിട്ടെനിക്ക് തോന്നീട്ടുണ്ട് അതുപോലെ വായനാശീലം ഇന്നുള്ള കുട്ടികൾക്ക് വളരെ കുറവുള്ളത് പോലെ തോന്നുന്നുണ്ട് ഞാനെൻ്റെ മകനെ ഉൾപ്പെടെ ആലോചിച്ചിട്ട് പറയുകയാണ് വായനാശീലം ഇല്ലാത്തത് കൊണ്ടും ആയിരിക്കാം അക്ഷരങ്ങൾ വലിയ തിട്ടമില്ല പിന്നെ ബാക്കിയെല്ലാം ഇംഗ്ലീഷിലാണ് അവർ പഠിക്കുന്നത് അപ്പോൾ പിന്നെ മലയാളം ആ ഒരു വിഷയം മാത്രമല്ലേ ഉള്ളൂ പുസ്തകം വായിക്കാനൊരു ഇൻട്രസ്റ്റുവില്ല അപ്പോൾ വായന കുറയുന്നതിനനുസരിച്ച് അവർക്ക് അക്ഷരങ്ങളും അത്രക്ക് തിട്ടമില്ലാതെ വരുന്നുണ്ട് പണ്ട് പഠിച്ചവർക്കൊക്കെ ഈ മലയാളം മീഡിയം പഠിച്ച് വന്നവർക്കൊക്കെ മ ഭാഷയോട് വലിയ ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നിയിട്ടില്ല ഇന്നുള്ള കുട്ടികൾക്കതു പോലെ മലയാളത്തിൻ്റെയാണേലും വ്യാകരണം ഒക്കെ കുറച്ചല്ലേ പഠിക്കാനുള്ളു പണ്ട് അതല്ലായിരുന്നു പണ്ട് ഉള്ളവർ അതൊക്കെ നല്ല രീതിയിൽ പഠിച്ച് വന്നതാണ് അതാണ് മലയാളത്തെക്കുറിച്ച് പറയാനുള്ളത് അതാണ്